കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിന് നമുക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അവരുടെ പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കുമ്പോൾ അവർക്ക് അവര് കഷ്ടപ്പെടുന്നതിനുള്ള തുക അത് ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാവണം ഡയറക്റ്റ് ഗവൺമെന്റ് എടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിസ് ആക്കികൊടുക്കുകയോ ചെയ്യണം ഇത് ഒന്നുമില്ല ഞാൻ പറയട്ടെ ഈ പ്രാവശ്യം വാഴയ്ക്ക് നല്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം ഇവര് വാഴ വയ്ക്കും മഴ കാരണം കാറ്റു കാരണം കുറേ വാഴ അങ്ങ് പോകും പിന്നെ വിപണിയിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ആ വർഷം വാഴക്കുലയ്ക്ക് വിലയുണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും നെല്ലെടുക്ക് നെല്ലെടുത്തു നോക്കട്ടെ നെല്ല് ഇപ്പോൾ നമുക്ക് കാലം തെറ്റിയ മഴയാണ് കൊയ്തിട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നാശനഷ്ടമാണ് പിന്നെ ഒന്നിനും പറ്റില്ല നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ആണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിപ്പോൾ ഇഞ്ചി ഈവർഷം ഇഞ്ചിക്ക് നല്ല വിലയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഈ വർഷം നല്ല ഇഞ്ചിക്ക് വിലയുണ്ട് അപ്പോൾ നമ്മള് ഏക്കർ കണക്കിന് നെൽ ഇത് എടുത്ത് സ്ഥലമെടുത്തിട്ട് നമ്മൾ ഇഞ്ചി ചെയ്യും ഇഞ്ചി ചെയ്യുമ്പോൾ അടുത്ത വർഷം ഇഞ്ചിക്ക് വിലയുണ്ടാവില്ല നമ്മൾ എത്ര പൈസ മുടക്കിയിട്ടാ ഇഞ്ചി ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സെൻറ്ററുകൾ തുടങ്ങി അതിനെ അവരിൽനിന്നും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട തുക നല്ലൊരു തുക അവരില് കർഷകരില് എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ആത്മഹത്യകളൊന്നും ഉണ്ടാവില്ല ഈ ബാങ്കിൽ നിന്ന് വരുന്ന ബാങ്കുകാരുടെ അടുത്തു നിന്ന് നമ്മൾ പൈസ എടുത്തു ചെയ്യുമ്പോൾ ആണ് ഇത്രയും ആത്മഹത്യകൾ വരുന്നത് പിന്നെ നല്ലൊരു കൗൺസിലിംഗ് എങ്ങനെയാണ് കൃഷിയുടെ നൂതന മാർഗ്ഗങ്ങളൊക്കെ പരിചയപെടുത്തിക്കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാതെ കർഷകര് മുന്നോട്ട് പോകും